എല്ലാ ഭാഷകള്ക്കും അതിന്റെതായൊരു വ്യത്യസ്തയും സൗന്ദര്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നൊരാളാണ് ഞാന് ഹിന്ദിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക ഭാഷ കൂടുതല് സംസ്ഥാനങ്ങളിലും ഹിന്ദിയാണ് സംസാരിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം അതങ്ങനെ ഔദ്യോഗിക ഭാഷ ആയിരിക്കുന്നത് എന്ത്കൊണ്ടെന്നാലും മാതൃഭാഷയില് സംസാരിക്കുമ്പോള് കിട്ടുന്നൊരു സംതൃപ്തിയും സാ ഒരു സം സമാധാനോം നമുക്ക് മറ്റേത് ഭാഷയില് സംസാരിച്ചാലും കിട്ടില്ല മലയാളത്തില് സംസാരിക്കുന്നതാണ് എനിക്കേറ്റവും കൂട്തലിഷ്ടം മറ്റേത് ഭാഷ കേട്ടാലും ഇംഗ്ലീഷായിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ മറ്റേത് ഭാഷയില് എന്ത് ചെയ്താലും സിനിമ കാണാനാണേലും പാട്ട് കാണാനാണേലും മലയാളത്തില് ചെയ്യുന്നതിന്റെ ആ ഒരു സന്തോഷോം കാണുന്നതിന്റെ സന്തോഷം കേൾക്കുന്നതിന്റെയാണേലും കാണുന്നതിന്റെയാണേലും ആ ഒരു സംതൃപ്തി നമുക്ക് മറ്റൊരു ഭാഷയിലും കണ്ടെത്താന് കഴിയുകയില്ല എനിക്ക് ഏറ്റവുമിഷ്ടം മലയാളം തന്നെയാണ് പിന്നെ ഞാനെന്റെ പത്ത് വര്ഷം ഹിന്ദി സ്കൂളിൽ പഠിച്ചൊരാളാണ് പക്ഷേ എനിക്കിതുവരെ ഹിന്ദീൽ ഇപ്പം എന്തെങ്കിലും ഹിന്ദീലറിയാമോ എന്ന് ചോദിച്ചാല് എനിക്ക് ഒന്നോ രണ്ടോ സെന്റെന്സ് പേര് പറയാനും പിന്നെന്ത് വേറെന്തെങ്കിലുവൊരു ഒന്നോ രണ്ടോ സെന്റെന്സ് മാത്രമല്ലാതെ വേറെ ഒന്നും എനിക്ക് ഹിന്ദീലറിഞ്ഞു കൂടാ എനിക്കതൊരു ടഫ് സബ്ജക്റ്റായിട്ടാണ് തോന്നുന്നത് ഒരു എനിക്ക് എത്ര ശ്രമിച്ചാലും പറ്റാത്തൊരു ഏറ്റവും കൂടുതൽ ഞാന് സമ പഠിക്കാന് ശ്രമിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റെന്ന് ചോദിച്ചാല് എനിക്കിഷ്ടമല്ലാത്തത് ഹിന്ദിയാണ് ഹിന്ദി ഭാഷ എന്താന്നറിയില്ല എനിക്ക് പഠിക്കാന് കഴിയുന്നില്ല അതുപോലെ ആയിരുന്നു പക്ഷേ മലയാളം അതൊക്കെ മലയാളം എന്ന് കേൾക്കുമ്പം തന്നെ ഒരു മലയാളം ക്ലാസ്സ് വരുമ്പത്തന്നെ നമുക്കൊരു സംതൃപ്തിയാണ് ബാക്കിയെന്തൊക്കെ പഠിച്ചാലും ഏ എന്തൊക്കെ ഉണ്ടെങ്കിലും മലയാളം ക്ലാസ്സക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷവാണ് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല നല്ല രസമായിരിക്കും കഥ കേൾക്കാം പാട്ട് കേൾക്കാം അതുകൊണ്ട് മലയാള ഭാഷയാണ് എനിക്കേറ്റവും കൂടുതല് ഇഷ്ടം